ഒരസുഖം വന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടു പോകാന് ഭയങ്കര പാടാണ് സ് കുഞ്ഞുങ്ങൾക്കു സ്കൂൾ തുറക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് റോഡുകൾക്ക് ഭയങ്കര പ്രെ ഏത് ഇടിവും കുന്തവും ഒക്കെ ആയിട്ട് കിടക്കുന്നതു കൊണ്ട് നമുക്കത് സ്കൂളുകളിലേക്കു പോകാന് ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്ന പിന്നെ ഗ്രാമത്തേലുള്ളവര്ക്ക് എന്താ പറയുക നമുക്കൊത്തിരിയും ബുദ്ധിമുട്ടാണ് പട്ടണത്തിലുള്ളവര്ക്കാണെങ്കില് ബസ്സുകള് കിട്ടും ഗ്രാമത്തിലുള്ളവര്ക്കാണെങ്കില് ബസ്സ് കിട്ടാൻ പാടാണ് ബസ്സില്ല ബോട്ടെ ഉള്ളൂ സ ബോട്ട് സര്വ്വീസേ ഉള്ളു ബോട്ടില്ലാതെ വന്നാൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽപ്പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് നമ്മള് പരാതികള് കൊടുത്താലും അവർ ചെയ്യാമെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് സര്ക്കാരില് നിന്നും അങ്ങനത്തെ ഒന്നും കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കാറില്ല പിന്നെ നമ്മൾ സമരത്തിനൊക്കെ ഇറങ്ങിയാൽ മാത്രമേ ഉള്ളൂ നമുക്കു പിന്നെയും വല്ലതും കിട്ടത്തുള്ളൂ അതു കുറേ സമരം ചെയ്തെങ്കില് മാത്രമേ ഉള്ളൂ നമുക്കതില് നിന്നും ഇത് ഇത് കെട്ടാന് പാ കിട്ടത്തുള്ളു ഇപ്പം ഒരസുഖം വന്നാൽത്തന്നെയാണേല് നമുക്കൊരു ഇച്ചിരി വെള്ളമായോ വെള്ളമൊക്കെ ആണെങ്കില് ഇപ്പം മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെയായി ചെളിഞ്ഞൊക്കെ കിടന്നാൽ നമുക്കു കൊണ്ടു പോകാനൊക്കെ ഭയങ്കര പാടാണ് അപ്പം നമുക്കൊരു ജീവന് രക്ഷിക്കാന് ഭയങ്കരമായിട്ട് പെ പാടുപെട്ടാണ് നമ്മളവരെ കൊണ്ടു പോകുന്നത് ആ സ്ഥാനത്ത് പട്ടണത്തിലാണെങ്കില് നിമിഷ നേരം കൊണ്ട് നമുക്ക് അവരെ എത്രയും വേഗത്തിലെത്തിക്കാൻ പറ്റും ഗ്രാമത്തിലുള്ളവര്ക്കാണെങ്കിൽ അതു പാടായിത്തീരുകയാണ്